ഞങ്ങളുടെ പ്രദേശത്തേക്കുള്ള വർദ്ധിച്ചു വരുന്ന ടൂറിസ്റ്റ് സന്ദർശനങ്ങളെ നേരിടാൻ മതിയായ വിഭവങ്ങൾ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എല്ലാം തന്നെ മലകളും കുന്നുകളുമാണ് അവിടേക്ക് പോകാനായിട്ട് മതിയായ വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതേപോലെ തന്നെയാണ് അവിടോട്ട് പോകുന്ന റോഡുകൾ റോഡുകളാണെങ്കിൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞും മഴയത്ത് എല്ലാ റോഡുകളും ആ പൊളിഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാൽ നടയായിട്ട് മാത്രം പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ വണ്ടികളോ വാഹനസൗകര്യങ്ങൾ തീരെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം അതേപോലെ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഓ തീരെ ഇല്ല താമസത്തിന് വീടുകളാണെങ്കിലോ അല്ലെങ്കിൽ വില്ലകളാണെങ്കിലോ റിസോർട്ടുകളാണെങ്കിലോ ഇവയൊന്നും തന്നെ ഇല്ല അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടെ അതായത് ഈ പ്രദേശങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇടുന്ന മാലിന്യങ്ങളാണ് മാലിന്യങ്ങൾ ഒരുപാട് മാലിന്യങ്ങൾ പുറംതള്ളപ്പെടുന്നു അതേപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമുണ്ട് പെട്ടെന്നുള്ള ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇതു എല്ലാം നമ്മുടെ വിനോദ സഞ്ചാരത്തെ ഞങ്ങളുടെ പ്രദേശത്തേക്കുള്ള വിനോദ സഞ്ചാരത്തെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ഗതാഗത സൗകര്യം തന്നെ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് സന്ദ സഞ്ചാരികളെ നമ്മുടെ പ്രദേശത്തേക്ക് ആകർഷിക്കാൻ കഴിയും എന്നാണ് എൻറ്റൊരഭിപ്രായം കാരണം ഗതാഗത സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് സുഗമമായി പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് ഇവിടോട്ട് ആകർഷിക്കാം അതേപോലെ വാഹനസൗകര്യവും വീടും അതായത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്നതാണ്